ഹലോ ഹലോ മേം ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നല്ലോ മേം എങ്ങനൊക്കെയാണതിൻ്റെ ആ എൻ്റെ പേര് റീന എൻ്റെ സ്ഥലം ചുണ്ടയാണ് മേം ഇത് എവിടെയാ ഇത് സ്ഥലം ആ മേം എങ്ങനെയാണ് ജോലിയുടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഓഹ് ഫുൾടൈം ആവുമ്പോൾ ഫുൾടൈം ആവുമ്പോൾ മേം എനിക്ക് എത്ര ദിവസത്തെ ലീവൊക്കെ കിട്ടും മാസത്തിൽ ഓ മേം എൻ്റെ പെയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ ഇത് ഫുൾടൈം നിന്നൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ കുറഞ്ഞൊരു എമൗണ്ടായിട്ടാണോ മേം ഓ ഒരു ആ വൈകുന്നേരം എനിക്ക് പിന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ രാത്രി ബുദ്ധിമുട്ടായിരിക്കും രാവിലെ വന്ന് രാത്രി വൈകീട്ട് പോവുന്ന ഒരു ഇതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ പിന്നെ ശമ്പളമൊക്കെ എങ്ങനെയാ മാം എനിക്ക് ഓ ഓ എന്നാ പിന്നെ അ ഹ ഹ മേം എനിക്കത് അക്കൗണ്ടിലങ്ങ് തന്നാൽ മതിയായിരുന്നു അതെ അതെ ആ ആ ആഹാരം പിന്നെ കുട്ടികളെ നോക്കാനാണ് പ്രധാനമായിട്ടും പറഞ്ഞത് പിന്നെ ആഹാരത്തിൻ്റെ കാര്യം വരുമ്പോൾ ഓവർലോഡൊക്കെ ആവത്തില്ലേ മേം ഓ ശരി ശരി ആ ഉച്ചയ്ക്കത്തെ വീട്ടിൽ വേറെ അംഗങ്ങളൊക്കെ ഉണ്ടോ അവരെ നോക്കേണ്ടവർ ഓ ഓ അവരെ സ്കൂളിലയക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അത്രയല്ലെ ഉള്ളൂ ഓ ശരി ആ ആ ശരി ശരി ആ ശരി ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ മേം അപ്പോൾ എനിക്ക് ഞാൻ നാളെ തൊട്ട് വന്നാലോ ആ ശരി ശരി ആ നാളെ ഒന്നാം തിയ്യതി മുതൽ ഓഹ് ആ അപ്പോൾ ശരി മേം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബെൻറ്റും മക്കളും ഒക്കേ ഉളളൂ ആ പഠിക്കുകയാ ആ എന്നാൽ ശരി മേം എങ്കിൽ നാളെ പിന്നെ ഒന്നാം തിയ്യതി മുതൽ വരാം